ഞാൻ ദിവസവും വാർത്താ ചർച്ചകള് കാണാറുണ്ട് ചർച്ചകള് സജീവമായിട്ട് തന്നെ അത് കാണുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യാറുള്ളൊരാളാണ് വാർത്ത ഏതാണ്ട് ഏഷ്യാനെറ്റ് അതുപോലെത്തന്നെ ട്വന്റി ഫോർ കേരളാ വിഷന് ഇതെല്ലാം മാറി മാറി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ചാനലുകള് ആ ചാനലുകളിൽ വരുന്ന ചർച്ചകള് ഇതെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ചർച്ചകള് പലപ്പോഴും അതിര് കടക്കുന്നുണ്ടെങ്കിൽപ്പോലും പൊതു താല്പര്യങ്ങളും അതുപോലെ തന്നെ പൊതുവായ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് സമൂഹത്തില് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുവാനും സാധിക്കുന്നുണ്ട് എങ്കിലും ചില ചാനൽ ചർച്ചകള് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു സമീപനവും പലപ്പോഴും സ്വീകരിക്കാറുണ്ട് അപ്പോള് അങ്ങനെ സ്വീകരിക്കുന്നതിന് അങ്ങനെ അവര് സ്വീകരിക്കുന്ന നിലപാടിനോട് വളരെ വിയോജിപ്പുള്ളൊരാളും കൂടിയാണ് ഞാന് എന്തായാലും ശ്രീകണ്ഠന് നായരെപോലെയുള്ള അവതാരകര് അതുപോലെത്തന്നെ ഹാഷ്മിയെ പോലെയുള്ള അവതാരകര് അതുപോലെ കേരളാവിഷൻ്റെ പല അവതാരകരും അവരെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടുപോകുന്നവരാണ് സാധാരണ ജനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിലുള്ള സംഭാഷണശൈലിയും അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനവുമാണ് അവരുടെ ഭാഗത്ത് നിന്നൊക്കെ പലപ്പോഴും കാണാറുള്ളത് ഈ വാർത്താ ചാനലുകളിൽ വരുന്ന ചർച്ചകളും അതുപോലെത്തന്നെ ഈ അവരുടെ തുടർ നടപടികളുമൊക്കെ വളരെ ശ്ലാഘനീയമാണ് നമുക്കറിയാം വയനാട്ടില് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോള് നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള എല്ലാ ചാനലുകളും ഒരു സജീവസാന്നിദ്ധ്യം വഹിക്കുകയും അവര് അവരെ സഹായിക്കുന്നതിന് ആവശ്യമായ ധാരാളം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ ചാനൽ അവരുടെ സംപ്രേക്ഷണം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകള് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകള് ആ ചർച്ചയിൽ പലപ്പോഴും

ചാനലും ചാനൽ ചർച്ചകളും വളരെ നന്നായി പോകുന്നുവെന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായൊരു കാര്യമാണ് പിന്നെ എല്ലായിപ്പോഴും എല്ലാത്തിനെയും നമുക്ക് പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല ചില വ്യക്തി താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം മുന്നോട്ടുപോകുന്ന ചാനലുകളുമുണ്ട് അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും മത മതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും സാമുദായിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെയുള്ള ചില നടപടികൾ മുന്നോട്ടുപോകുമ്പോള് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എങ്കിലും പൊതുവെ ഈ ചാനൽ ചർച്ചയും അതിൻ്റെ സംവാദങ്ങളും അതിൻ്റെ മറുപടികളും അതനുസരിച്ചുള്ള പിന്നീടുള്ള വിലയിരുത്തലുകളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടുപോകുന്നത് എന്തായാലും ഈ ചർച്ച ചാനൽ ചർച്ചയെ അങ്ങേയറ്റം മാനിക്കുന്നു ബഹുമാനിക്കുന്നു